ഇന്നത്തെ കാലത്ത് ഗ്രാമപ്രദേശങ്ങളിൽ സർക്കാർ ഭരണം ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ തന്നെയുള്ള ബുദ്ധിമുട്ടുള്ള കാലത്തില കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് മോശമായ വളരെ മോശമായ സേവനങ്ങളാണ് അവരുടേത് നിന്ന് കിട്ടുന്നത് ഇപ്പം റോഡുകൾ വന്ന് നോക്കുക മുഴുവൻ കുണ്ടും കുഴിയും ആണ് അവിടെ ഒരു നേരെ വാ യാത്ര ചെയ്യാൻ പറ്റാതെ നടക്കാൻ പോലും വയ്യ പിന്നെയല്ലേ വാഹനങ്ങൾ ഓടിക്കാൻ പറ്റുന്നത് അങ്ങനെ യാത്ര ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാവുന്ന റോഡുകൾ പഞ്ചായത്ത് റോഡുകൾ എന്ന് പറയുമ്പോൾ ഒരിടത്ത് ഇപ്പം റോഡ് ഉണ്ടാക്കി നന്നാക്കി കഴിയുമ്പോഴത്തേന് അടുത്ത വാട്ടർ അതോറിറ്റിക്കാർ വന്നത് മാന്തി കുഴിച്ച് ചളിപിളി ആക്കി വെച്ചേച്ച് പോവും അവർ ചിലപ്പം മൂടും ചിലപ്പം മൂടില്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ ആളുകൾ അതിനകത്ത് വീഴുന്നു അപകടങ്ങൾ ഉണ്ടാവുന്നു ഇങ്ങനെയുള്ള ഒരൂ ഒരു സാഹചര്യമാണ് റോഡിലുള്ളത് വെള്ളത്തിൻ്റെ കാര്യം നോക്കിയാൽ പകുതി ദിവസം കാണും പകുതി ദിവസം വെള്ളം ഉണ്ടാവില്ല വെള്ളം ഇല്ലാത്തവർ ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുക എന്നുള്ളൊരു സംവിധാനം എന്നാൽ പൈ പൈസ കൃത്യമായിട്ട് ചെല്ലണം ചെന്നില്ലെങ്കിൽ അവർ ഫൈൻ അടിക്കുന്നു ഇനി പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയാൽ വെറുതെ നിന്ന് ഇങ്ങനെ ക്യൂ നിൽക്കാം എന്നല്ലാതെ ആ കാര്യങ്ങൾ നടക്കില്ല എത്ര പ്രാവശ്യം കയറിയാലാണ് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ ഓരോ കാര്യങ്ങൾ ആണ് പറയുക അത് വേണം ഇത് വേണം പിന്നെയും ചെല്ലുമ്പോൾ അതില്ല ഇതില്ല എന്നാൽ പിന്നെ എല്ലാം കൂടെ ഒന്നിച്ചൊരു ലിസ്റ്റ് എഴുതിയാൽ ആളുകൾക്ക് എളുപ്പം ഉണ്ട് ആ ലിസ്റ്റ് അനുസരിച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയാൽ മതി അതും സമ്മതിക്കില്ല ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മടക്കി അയച്ചുകൊണ്ടേ ഇരിക്കുന്നു ഇന്നലെ ഒരൂ ഒരു ഭരണത്തെ സംബന്ധിച്ച് ഒരൂ ആളുകൾ ഇല്ലെങ്കിൽ ഇത് ഉദ്യോഗസ്ഥന്മാർ ശരിയല്ലെങ്കിൽ ഭരണത്തിന് വളരെ ബുദ്ധിമുട്ടായ രീതിയിലേക്കാണ് മനുഷ്യൻ്റെ ഓരോരുത്തനും ഇവരുടെ ശമ്പളം അല്ലെങ്കിൽ ഇവരുടെ നികുതിയിൽ നിന്നാണ് അവർ ശമ്പളം മേടിക്കുന്നത് എന്നുള്ളൊരു ചിന്ത പോലും അവർക്കില്ല ആളുകളുടെ നികുതിയിൽ നിന്നാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് അപ്പം ആളുകളാണ് അല്ലെങ്കിൽ പൊതുജനങ്ങളാണ് ഇവരുടെ ദാതാക്കൾ അല്ലെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കുന്ന ആളുകൾ ഉദ്യോഗ ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പളം കൊടുക്കുന്നത് പൊതുജനങ്ങളാണ് അപ്പം പൊതുജനങ്ങളാണ് മാസ്റ്റർമാർ പക്ഷേ അത് ഉദ്യോഗസ്ഥന്മാർ അങ്ങ് ഏറ്റില്ല ഉദ്യോഗസ്ഥപ്രഭു പ്രഭുത്ത്വം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ അവരുടേതായ വലിയ ആളാണെന്നുള്ള രീതിയിലവിടെ ഇരിക്കുന്നതല്ലാതെ പൊതുജനങ്ങൾക്കൊന്നും ചെയ്യുന്നില്ല ഇത് ബാക്കി വന്നു കഴിയുമ്പോൾ നമ്മൾ പരിസ്ഥിതിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ പഞ്ചായത്ത് തരത്തിലുള്ള അല്ലെങ്കി താഴേത്തട്ടിലുള്ള ഒരെൺ ഒരെണ്ണം പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതേയില്ല തോന്നുന്ന ഇടത്ത് ഒക്കെ റോഡ് വയ്ക്കുന്നു തോന്നുന്ന ഇടത്ത് പ്ലാസ്റ്റിക്ക് കത്തിക്കുന്നു തോന്നുന്ന ഇടത്ത് ഇതെല്ലാം കൂട്ടി ഇടുന്നു അവിടെ ചെന്ന് ചിലപ്പം തീ പിടിക്കും ചിലപ്പം തീ പിടിക്കില്ല ചിലപ്പം പട്ടികൾ വാരി വരുന്നു ഇതെല്ലാം ഒരു അശ്രദ്ധമായിട്ടാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നെങ്കിൽ ഇതിനകത്തുള്ള വേസ്റ്റ് വേസ്റ്റ് അത് വളരെ കൃത്യമായ തോതിലത് മാനേജ് ചെയ്യുകയാണങ്കിൽ അത് ഒരു അസറ്റ് ആണ് അല്ലാതെ ഇത് ഒരു നാശമായിട്ട് ഇല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാത്ത കാര്യമായിട്ട് നമുക്കത് ഗണിക്കാൻ പറ്റില്ല ഈ കാടോ പുല്ലോ ഭക്ഷണ അവശിഷ്ടങ്ങളോ എല്ലാം അത് ജൈവവളം ആക്കി മാറ്റിയെടുക്കുവാണേൽ നമുക്ക് അതിനകത്ത് വളരെ വലിയ തോതിൽ കൃഷി ചെയ്യാനുള്ളൊരു മാർഗം കൂടിയായിട്ടത് മാറുന്നുണ്ട് അത് ജനങ്ങളാരും നോക്കുന്നില്ല പഞ്ചായത്തും ശ്രദ്ധിക്കുന്നില്ല പഞ്ചായത്തുകൾ ഇത് ഒരിടത്ത് കൂട്ടിയിട്ടാൽ അത് അവിടെ കിടക്കും അത് പട്ടിയും പൂച്ചയും മാന്തി അങ്ങോട്ട് മാന്തി ഇങ്ങോട്ട് മാന്തി അത് കടിയുണ്ടാക്കി അത് പൊതുജനങ്ങൾക്ക് അത് അവിടെ ചീഞ്ഞ് മണത്ത് അങ്ങനെ കൂടി കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു അപ്പം അതൊക്കെ മാറാനുള്ള സംവിധാനങ്ങൾ ഇവരാരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അത് ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ് ഉദ്യോഗസ്ഥന്മാരാണ് അങ്ങനെ ഉള്ള സംവിധാനങ്ങൾ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഭരണം ഭരണ തലത്തിലുള്ള ആളുകളാണ് അത് ചെയ്യേണ്ടത് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടത് സംവിധാനങ്ങൾ ഇഷ്ടം പോലെയുണ്ട് അതിനുള്ള മാർഗ്ഗങ്ങളും ഉണ്ട് പക്ഷേ അവരാരും ചെയ്യുന്നില്ല ഓരോരുത്തർക്കും എന്താണ് കിട്ടാനുള്ളത് എന്നത് നോക്കി കയ്യിട്ട് വാരാനുള്ള മാർഗ്ഗങ്ങളല്ലാതെ അവർ വേറെ ഒന്നും നോക്കുന്നില്ല പക്ഷേ സമൂഹത്തിൻ്റെ ഒരു നിലനിൽപ്പിന്റേതായൊരു പ്രശ്നം ഇവർക്കിതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല ആരോഗ്യമണ്ഡലത്തിൽ നോക്കിയാൽ കുറേ പേർക്ക് കുറേ ഗുണങ്ങൾ കിട്ടും ഇപ്പോൾ മരുന്ന് പഞ്ചായത്തിന് കാര്യം പഞ്ചായത്തുകളിലെല്ലാം ഹോമിയോ ഉണ്ട് ആയുർവേദം ഉണ്ട് അലോപ്പതി ഉണ്ട് എല്ലാ ചികിത്സയും ആശുപത്രികൾ ഉണ്ട് നേ സ്റ്റാഫ് ഇല്ല ആഴ്ചയിൽ പകുതി ദിവസം ഡോക്ടർമാർ ഉണ്ടാവില്ല ഇനി ഡോക്ടർമാർ ഉള്ള ദിവസം ചെന്നാൽ അവർക്ക് മരുന്ന് ഉണ്ടാവില്ല ചുരുക്കം ഇത് വല്ല ആശുപത്രി എന്ന് പറയുന്നത് വെറുതെ ഒരു നോക്കുകുത്തി പോലെ ഇരിക്കുന്ന ഒര സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് ആശുപത്രിയിൽ കൃത്യമായ മരുന്ന് കിട്ടണം കൃത്യമായ ചികിത്സ കിട്ടണം കൃത്യമായ പരിശോധന ഉണ്ടാവണം ഇതൊന്നും അവിടെ ഒരിടത്തും നടക്കുന്നില്ല ഇതൊക്കെ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളാണിത് അവർ ഈ ഭ ഭരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും അവർക്കറിയാൻ പാടില്ല അവർക്ക് കയ്യിട്ട് വാരാൻ എന്താണ് കിട്ടുന്നത് എന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭരണം എന്ന് പറഞ്ഞാൽ അതൊരു ഭരിക്കുന്ന ജനങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാവുന്ന ഒരു ഭരണം ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിനകത്ത് ഉള്ള ലക്ഷ്യം അതവർ ശ്രദ്ധിക്കുന്നില്ല അവർ രോഗികൾക്ക് ഇപ്പം എല്ലാവർക്കും മരുന്ന് എല്ലാ മരുന്നുകളൊന്നും മേടിക്കാൻ പറ്റുന്ന പറ്റുന്ന കാര്യമല്ല ജനങ്ങളുടെ ഒരു ഒത്തിരി ഇല്ലെങ്കിലൊരു അറുപത് ശതമാനം ആൾക്കാരെ ഒരു നേരത്തെ ഭക്ഷണത്തിനു പോലും ബുദ്ധിമുട്ടുന്ന ആൾക്കാർ കേരളത്തിൽ ഇന്ന് ഉണ്ടാവുന്നുണ്ട് അപ്പം അതൊന്നും അവർ കാണുന്നില്ല അതിന്റെ പുറമേ ഈ മരുന്ന് മേടിക്കാനും കൂടെ അവർക്കുണ്ടാവുന്നില്ല ആ മിക്കവാറും ആൾക്കാരെല്ലാം സാമൂഹ്യ പെൻഷൻ കൊണ്ടാണ് നിലനിന്ന് പോകുന്നത് അതും ഒരു മാസം കിട്ടുന്ന ആയിരം ആയിരത്തി അറുനൂറ് രൂപ കൊണ്ടാണ് നിലനിൽക്കുന്നത് അതിനിടയിൽ അവരുടെ ഭക്ഷണം നോക്കണം വസ്ത്രം നോക്കണം മരുന്ന് നോക്കണം അപ്പം ഇതെല്ലാം കൂടെ തികയുന്നില്ല ഒരു പക്ഷേ ഇത് സ് സർക്കാർ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ആരോഗ്യപരമായ കാര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കാനുള്ള സംവിധാനം സർക്കാർ ചെയ്യേണ്ടതുണ്ട് അപ്പം മരുന്നുകൾ സർക്കാരിന് കുറേ മരുന്നുകൾ വിതരണം ചെയ്യാം അപ്പം ആ വിതരണം ചെയ്യുന്നതിനകത്ത് തന്നെ അഴിമതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ അഴിമതി കൊണ്ട് സംഗതി നടക്കില്ല അവിടെയൊക്കെ ട്വൻടി ട്വൻടി അവിടെ ഭഷണ ഭരണത്തിൽ വന്നിട്ടുണ്ടെന്ന് കേട്ടു അവരാണെങ്കിൽ അമ്പത് ശതമാനം വിലക്കുറവിലാണ് അവിടെ മരുന്നുകളും എല്ലാം വിതരണം ചെയ്യുന്നത് പക്ഷേ അതുപോലെ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും അതുപോലെ ചെയ്യാൻ പറ്റും ഇവർ ഇവരെ കയ്യിട്ട് വാരുന്ന ഇത് ജന ഉദ്യോഗസ്ഥന്മാരും ഭരണ നി നിയന്ത്രിക്കുന്ന ആളുകളും കയ്യിട്ട് വാരാതിരുന്നാൽ ഇത് ഒത്തിരി ഗുണങ്ങൾ ചെയ്യാൻ പറ്റും അത് അവർ ചെയ്യുന്നില്ല അതേപോലെ തന്നെയാണ് കുറ്റകൃത്യങ്ങളും വരുന്നത് കിട്ടുന്നവൻ കിട്ടുന്നിടത്ത് നിന്ന് കട്ടുകൊണ്ട് പോകുന്നു പോലീസുകാർ എന്നൊക്കെ പിടിക്കാൻ പറ്റുന്നില്ല സി സി ടി വി എല്ലാടുത്തും വെച്ചിട്ടുണ്ട് ഒരുത്തൻ ടി സി സി ടി വി പ്രവർത്തിക്കുന്നില്ല ഈ പ്രവർത്തിക്കാത്ത സി സി ടി വി കൊണ്ട് ആൾക്കാരെ കണ്ടെത്തുന്നത് എങ്ങനെയാണ് ഇതിപ്പം സാധനം അവിടെ ഉണ്ടെന്നല്ലാതെ ഈ സാധനം കൊണ്ട് യാതോരു ഗുണവും ഇല്ല ഇപ്പം റോഡിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് റോഡിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ആർക്കാണ് മെച്ചം രാത്രി അത് കത്തുന്നില്ല അത് കത്താതെ അങ്ങനെ നിൽക്കുന്നു ഇവിടെ നിലമ്പൂർ സോളാറിന്റെ ലൈറ്റ് വെച്ചു ഒരു കുറച്ച് ഒരു പത്ത് കുറേ എണ്ണം അങ്ങ് വെച്ചു ഏകദേശം ഒരു നിലമ്പൂരിലും പഞ്ചായത്തിൻ്റെ ഇങ്ങേ തല മുതൽ അങ്ങേത്തല വെച്ച് ഒരു എട്ട് അഞ്ചെട്ട് കിലോമീറ്റർ ദൂരെ എങ്കിലും ഉണ്ടാവും ഇത്രയും ഭാഗത്ത് സോളാറിൻ്റെ ലൈറ്റ് വെച്ചു അതിനകത്ത് പകുതി കത്തി പകുതി കത്തിയില്ല കുറേക്കാലം കഴിഞ്ഞപ്പോൾ അത് മുഴുവനും കത്താതെ വന്നു അതോടുകൂടി ആൾക്കാർ എല്ലാം ഓരോന്നോരോന്ന് പറിച്ചുകൊണ്ട് പോയി കാൽ വരെ പറിച്ചുകൊണ്ട് പോയി ഇപ്പം യാതൊന്നുമില്ല പാനൽ കൊണ്ടുപോയി ബാറ്ററി കൊണ്ടുപോയി ലൈറ്റ് കൊണ്ടുപോയി അവസാനം കാലും പറിച്ചുകൊണ്ട് പോയി ഇങ്ങനെയാണ് ആൾക്കാരുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതൊന്നും തടയാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഈ സാമൂഹ്യമായ ഒരാ അശാന്തി ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട് സാമൂഹ്യമായിട്ട് ഇത് നാ കുറ്റകൃത്യങ്ങൾ തടയാൻ വരാതിരിത തടയാൻ കഴിയാത്ത വരികയാണെങ്കിൽ ഇവിടെ സാമൂഹ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആളുകൾ സാമൂഹ്യമായ രീതീൽ ഇതിനകത്ത് പ്രതികരിക്കാൻ തുടങ്ങിയാൽ അത് വിഷയമാണ് സാമൂഹ്യം ആളുകൾ പ്രതികരിക്കുന്ന ഇടത്താണ് ഇതിനകത്ത് എന്തെങ്കിലും നടക്കുന്നുള്ളൂ എന്നുള്ളത് വേറൊരു വസ്തുതയാണ് അവിടെ ആന ആളെ ചവിട്ടിക്കൊന്നു ചവിട്ടിക്കൊന്നപ്പം ആയിരക്കണക്കിന് ആളുകളാണ് കൂടിയത് അതിന് അവിടെ പ്രതികരിച്ചത് അത് പ്രതികരിച്ച് പറയാൻ ഉന്തും തള്ളും അടിപിടി ഉണ്ടായെങ്കിൽ പോലും കാര്യത്തിന് തീരുമാനം ഉണ്ടായി അവർക്ക് കോമ്പൻസേഷൻ കൊടുത്തു അതിനുള്ള പുതിയ ഇത് വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ അവർ തീരുമാനമെടുത്തു പക്ഷേ ഇതിന് ഇതിന് മുമ്പ് നടന്നവരോ ഇതിനു മുമ്പ് ആന ചവിട്ടി കൊന്നവർക്കൊന്നും അഞ്ചു പൈസ കിട്ടിയിട്ട് പോലുമില്ല ഇത് ഇതൊരു ജനകീയ പ്രക്ഷോഭമായിട്ട് മാറ്റി എടുത്തെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ വളരെ പ്രശ്നമാണ് ഈ രാഷ്ട്രീയമായിട്ട് ഇല്ലെങ്കിൽ എല്ലാ പാർട്ടിക്കാരനും മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പ്രശ്നമാണല്ലൊ അന്യ പാർട്ടി ഭരിക്കുന്ന പാർട്ടിക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയിലെ അംഗങ്ങൾക്ക് മാത്രമേ ജോലിയുള്ളൂ അംഗങ്ങൾക്ക് മാത്രമേ എന്തെങ്കിലും വരുമാനം ഉണ്ടാകുന്നു എന്നുള്ളൊരു സ്ഥിതി വന്നാലത് വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ് എല്ലാ പാർട്ടിക്കാർക്കും ജീവിക്കണം പാർട്ടി ഏതാണെങ്കിലും ആളുകൾക്ക് ജീവിക്കാൻ പറ്റണം അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റണം ഇവിടെ പി എസ് സിയുടെ ആളുകളെ നോക്കി പി എസ് സി എഴുതാത്തൊരു പാർട്ടിക്കാരൻ ആണെങ്കിൽ പി എസ് സി എഴുതുക പോലും വേണ്ട അതിനകത്ത് തിരുകി കയറ്റി അവർ ഫസ്റ്റിലേക്കെത്തുന്നു ഇവിടെ പാർട്ടിക്കാരെ ഈ എസ് ഐ ടെസ്റ്റിന് പോയിട്ട് എസ് ഐ ടെസ്റ്റിൻ്റെ ടെസ്റ്റ് എഴുതാത്തവർ അതിനകത്ത് കയറി മുന്നിലെത്തി അപ്പോൾ ഇത് ആൾക്കാർ കണ്ട് പിടിച്ചതോടുകൂടി അത് ക്യാൻസൽ ചെയ്യുന്നു ഇങ്ങനെ ഒരു പാർട്ടി ഒരു രാഷ്ട്രീയം വെച്ച് നോക്കിയത് രാഷ്ട്രീയ പാർട്ടി അത് ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി മാത്രം ആളുകളെ സംഘടിപ്പിക്കുക ആളുകളെ നോക്കുക ആളുകൾ മറ്റേ പാർട്ടിക്കാർക്ക് വേണ്ടി അടിപിടി ഉണ്ടാക്കുന്നവരെ മാത്രം നിലനിർത്തുക അതിപ്പം പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രം അടിപിടിക്കുന്നൊരു ഗുണ്ട സെറ്റ് തന്നെ പാർട്ടിക്കാർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എം എൽ എമാരുടെ ക അവരുടെ ഒരു ഗുണ്ട സെറ്റ് മന്ത്രിക്ക് ഉണ്ടൊരു മുഖ്യമന്ത്രിക്ക് പോലും ഇപ്പം ഒരു ഗുണ്ട സെറ്റ് കയ്യിലിരിപ്പുണ്ട് അപ്പം അവർക്കുവേണ്ടി ബഹളം ഉണ്ടാക്കുന്ന ആളുകളെ മാത്രം അവർ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു അവർക്ക് അങ്ങനെ ഒരു ഗുണ്ട സെറ്റ് ഉണ്ടാക്കി ആളുകളെ പേടിപ്പിച്ച് ജീവിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ മാത്രം ചെയ്യുന്നു ഞങ്ങൾ മാത്രം ജീ ഞങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആ പാർട്ടിക്കാർ എത്തുന്നു ഇതൊരു ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇത് ജനങ്ങൾ എങ്ങനെയാണ് ഇതിനകത്ത് പ്രതികരിക്കാതിരിക്കുന്നത് പ്രതികരിയ്ക്കൽ പ്രതികരിക്കുന്നവരെ കേസിനകത്ത് കുടുക്കുക അവരെ കൊണ്ട് ജയിലിൽ അടയ്ക്കുക പിന്നെ ഇപ്പം എന്താണ് ചെയ്യാൻ പറ്റുക ഇങ്ങനെ വന്ന് കഴിയുമ്പോത്തേന് രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ പോലും ഇതിനകത്തൊരു മാറ്റം വരേണ്ടതുണ്ട് ജനങ്ങൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവകാശങ്ങളെ കുറിച്ചും ബോധ്യം വരാത്തിടത്തോളം കാലം ഇതിനകത്തൊരു മാറ്റം വരാനുമില്ല ഓരോരുത്തർ അവനവന്റെ അവകാശങ്ങൾ തിരിച്ചറിയണം പിന്നെ പ്രത്യേകിച്ച് എന്ന് പറയുമ്പം ഈ ജനങ്ങൾ ഒരു സം സംഘടിതമായിട്ട് വരുന്നില്ല കർഷകരാണ് വേണ്ടത് കർഷകനാണ് നാടിൻ്റെ നട്ടെല്ല് കർഷകർ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാനും പറ്റില്ല ഒരു സാധനം ഭ ഭക്ഷ്യസാധനങ്ങൾ ഉല്പാദിപ്പിച്ചില്ലെങ്കിൽ എല്ലാവരും പട്ടിണി കിടക്കുകയേ ഉള്ളൂ അത് എവിടെ കർണാടകത്തിൽ നിന്ന് വരും ആന്ധ്രയിൽ നിന്ന് വരും എന്ന് പറഞ്ഞ് നോക്കി ഇരുന്നിട്ട് കാര്യം ഒന്നുമില്ല അല്ല അവിടെ ആണെങ്കിലും കർഷകർ കർഷകർ തന്നെയാണ് വാസ്തവത്തിൽ ഇവിടെ നമ്മൾ നമ്മുടെ പാടത്ത് ഇല്ലെങ്കിൽ ഇപ്പോൾ പാടങ്ങളിലെ കൃഷി പാടശേഖരങ്ങളിലെ കൃഷി ഇറക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള നെല്ലിവിടെ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ അതുണ്ടാക്കാൻ സർക്കാരും സമ്മതിക്കുന്നില്ല ജെനങ്ങളും സമ്മതിക്കുന്നില്ല തൊഴിലാളികളും സമ്മതിക്കുന്നില്ല തൊഴിലാളികൾ പാടത്തേക്ക് മെഷിനറി ഇറക്കിയാൽ പ്ര ട്രാക്ടർ ഇറക്കിയാൽ അതിന് സമരം എന്നാൽ പണിക്കാർ ഇറങ്ങുമോ അത് ചെയ്യുകയും ഇല്ല നടാൻ കൊയ്യാൻ മെതിക്കാൻ ആളുകൾ ഇറങ്ങിയാൽ സമരം സമരം ആണ് ഇല്ലെങ്കിലൊരു അവർ ഒരു മെഷിനറി കൊണ്ടുവന്നാൽ അതിനും സമരം ആണ് ആളുകൾ അതിനകത്ത് ചെയ്യാൻ തയ്യാറല്ല എങ്ങനെ പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ള ആളുകളാണ് എന്നുള്ള ചിന്തയിലാണ് ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടൊന്നും ഒരു പ്രശ്നം പരിഹരിക്കുന്നില്ല ജനങ്ങൾ നന്നാവണം അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ബോധ്യപ്പെടണം ഉത്തരവാദിത്തങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റണം അതിനനുസരിച്ച് അവർ പ്രതികരിക്കുകയും വേണം അതേപോലെ തന്നെ ഭരണാധികാരികളും വേണം അവർ അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കുന്നതാണ് ഭരണാധികാരികളുടെ ഉത്തരവാദിത്വം അത് ഭരണാധികാരികൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം ഇല്ലെങ്കിൽ പിന്നെ ജനങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ ജീവിക്കാൻ പറ്റുക അതിനൊരു സം സമൂലമായൊരു മാറ്റമാണ് നമുക്ക് ഇതിനകത്തുള്ളത് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്